ഹലോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചനല്ലേ അച്ചാ ഞാൻ എൻ്റെ മകളുടെ മാര്യേജിൻ്റെ കാര്യം എങ്ങനെയാണ് എന്താണങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞങ്ങൾ രണ്ടു മാസത്തിനുള്ളിൽ മാര്യേജ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അതിനു മുൻപെന്തെങ്കിലും നമ്മൾ ചെയ്യാനുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇല്ല കോഴ്സ് കൂടിയിട്ടില്ല

മാര്യേജ് കോഴ്സ് കൂടിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മതിയോ ഓക്കെ നമ്മൾ രണ്ടു മാസത്തിനുള്ളിലെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അടുത്ത മാസത്തെ ഫസ്റ്റ് വീക്കിൽ ഇത് പിന്നെ മാര്യേജ് കോഴ്സിനുണ്ടെങ്കിൽ അതിനു പോയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുത്തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നത്തെ മാസം കെട്ടുനടത്താൻ പറ്റുമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ആ നമസ്ക്കാരമൊക്കെ ചോദിക്കുമോ പണ്ടത്തെപ്പോലെ ഇപ്പോഴും ഓക്കെ അച്ചാ അങ്ങനെ ചെയ്യാമെന്നു വച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ആ അതും ചെയ്യാം പക്ഷെ അച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ മൂന്ന് പിന്നേ ഞായർ വിളിച്ചു ചൊല്ലുന്നു എന്നു പറഞ്ഞല്ലോ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ദിവസം എൻഗേജ്മെൻറ് വയ്ക്കുന്നതുകൊണ്ടെന്തെങ്കിലും വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഞാൻ വിചാരിക്കുന്നത് അടുത്തമാസം അവസാനം എൻഗേജ്മെൻറ് നടത്താൻ നമുക്ക് ഡിസംബറിന് മുൻപ് കല്ല്യാണം അച്ചനൊന്നു പറയുമോ ഓക്കെ അങ്ങനെ ചെയ്തിട്ട് മാര്യേജ് കോഴ്സ് എന്തായാലും ഓക്കെ ഓക്കെ അവർ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അവർ ഓൾറെഡി കൂടി അപ്പം പിന്നേ മകൾ മാത്രമേ ഉള്ളൂ കൂടാൻ പെട്ടെന്നുവന്ന ആലോചനയാണ് അച്ചാ അതാണ് കൂടാതിരുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അടുത്തമാസം അവസാനമാകുമ്പോൾ എൻഗേജ്മെൻറും വച്ചിട്ട് പിന്നത്തെ മാസം കല്ല്യാണം അപ്പോൾ നമുക്ക് കുറച്ചു ടൈമ് കിട്ടുമല്ലോ പെട്ടെന്നു നടത്തണം കാരണം ഡിസംബർ ആകുമ്പോൾ നൊയമ്പ് തുടങ്ങുമല്ലോ അതിനുമുമ്പ് നടത്താം എന്നു വിചാരിച്ചിട്ടാണ് ആ ഓക്കെ അച്ചനൊന്നു വിളിച്ചാൽമതി എന്നാൽ അച്ചനൊന്നു വിളിച്ചു പറഞ്ഞാൽമതി ശരി അച്ചാ